എൻ്റെ മകൻ്റെ വച്ച് നോക്കുവാണെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ അവൻ ജനിക്കുന്ന വളരുന്നതായ സമൂഹത്തിൽ ആ ഒരു കാലഘട്ടത്തിൽ ഏത് വിദ്യാഭ്യാസമാണോ അവനുയർന്ന തലത്തിലെത്തിക്കുന്നത് ആ ഒരു വിദ്യാഭ്യാസം ആരു മേഖല ആ ഒരു ഇവിടെവരെ എത്തണമെന്നാണ് ഞാനാഗ്രഹിക്കുന്നത് എങ്കിലല്ലേ അവനവൻറ്റേതായ കാഴ്ചപ്പാടുകളെ വളർത്തിയെടുക്കാനും അവന് അവൻറ്റെ വരൂമാനത്തിൽ ജീവിക്കാനൊക്കെ വേണ്ടതായൊരു വിദ്യാഭ്യാസം അവിടെവരെ എത്തണമെന്നാണ് ഞാനാഗ്രഹിക്കുന്നത് എൻ്റെ സഹോദരനെ വെച്ചുനോക്കുമ്പോൾ അവനിപ്പോൾ വിദ്യാഭ്യാസം നേടി അവനവൻറ്റേതായ ജോലി നേടി കഴിഞ്ഞു പിന്നെ സഹോദരനെപ്പറ്റി നോക്കണ്ട കാര്യമില്ലല്ലൊ അതേ സമയം മകൻ്റെ വച്ചു നോക്കുവാണെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ അവനു അവൻറ്റേതായ ഒര് ഇതില് കാഴ്ചപ്പാടുണ്ടാകുമല്ലോ അവനെവിടെ വരെ പഠിക്കണമെന്നാണോ ആഗ്രഹം ഞാനവൻറ്റെയൊപ്പം കൂട്ട് നിക്കും അവനെ അവിടെ വരെ എത്തിക്കാനുള്ള മാർഗ്ഗങ്ങൾ ഞാൻ ശ്രമിക്കും അത്രയെ പറയാനുള്ളൂ